ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട് ഇല മടക്കുന്നതിൽ തൊട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട് ഒരു മരിച്ച വീട്ടിൽ പോയാലും ഒരു നല്ല വിശേഷങ്ങൾ ഉള്ള വീട്ടിൽ പോയാൽ ഇല മടക്കുന്നതില് നല്ലപോലെ വ്യത്യാസങ്ങളുണ്ട് അതും ഒരു അന്ധവിശ്വാസമാണ് അതല്ലാതെ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്നത് പണ്ടത്തെ ആൾക്കാര് പറയുന്നതാണ് അത് വെള്ളം ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പിന്നെ അതല്ലാതെ വേറെ ഇല ഇലയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ ഒരുപാട് അന്തവിശ്വാസങ്ങളും ഉണ്ട് ഉണ്ട് കഴിഞ്ഞിട്ട് കൈ ഒരുപാട് നേരം ഉണങ്ങാൻ വെയ്ക്കാൻ പാടില്ല പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ പ്ലേറ്റിനു ചുറ്റും അന്നം വീഴാണ്ട് ചോറുണ്ണുക പിന്നെ സംസാരിക്കാനും പാടില്ല എന്താണ്